ശാസ്ത്രരംഗത്ത് നിരവധി ശാസ്ത്രജ്ഞന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് സി വി രാമനെ പറ്റി രാമൻ ഇഫക്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ഏറ്റവും പുതിയതായിട്ട് കൽപ്പന ചൗള അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് നമ്മുടെ പ്രസിഡണ്ടായിരുന്ന മുൻ പ്രസിഡൻ്റായിരുന്ന എപിജെ അബ്ദുൾ കലാം ഇദ്ദേഹം രാമേശ്വരത്ത് ജനിച്ചു വളർന്ന ആളാണ് ഭാരതത്തിനും ഈ എല്ലാ സംസ്ഥാനത്തിനും മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ് വളരെ ഹമ്പിൾ സിമ്പിൾ ഏബിൾ എഫിഷ്യൻ്റ് ആൻ്റ് ഡയനാമിക് ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ രാജ്യത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളെ അങ്ങേയറ്റം ശ്ലാഘനീയമാണ് കുട്ടികളുമായിട്ട് സംവദിക്കുമ്പോൾ അവരിൽ ഒരുവനായും പ്രായമായവരുവായിട്ട് സംസാരിക്കുമ്പോൾ അവരിൽ ഒരുവനായി പോലെ എല്ലാ വിഭാഗം ആളുകളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയായിരുന്നു സംസാര ശൈലിയായിരുന്നു എ പി ജെ അബ്ദുൾ കലാമിന് ഒരു റോൾ മോഡൽ ആയിട്ട് പലരും മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകളും എ പി ജെ അബ്ദുൾകലാമിനെ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ സേവനങ്ങളെ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളെ ശാസ്ത്ര രംഗത്ത് ചെയ്തിട്ടുള്ള സേവനങ്ങളെ എല്ലാം എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല